ഹലോ രാജ് ട്രാവൽസ് അല്ലേ സാർ എനിക്ക് ഇപ്പം നാളെയാണ് യാത്ര പോകേണ്ടത് ഇപ്പം എനിക്ക് ഇപ്പം പോകേണ്ടത് കൽക്കട്ടയിലേക്കാണ് ഹൗറയിലേക്കാണ് പോകേണ്ടത് അപ്പം എനിക്ക് ലാസ്റ്റ് നിമിഷം നോക്കിയപ്പം എനിക്ക് ട്രെയിനിൻ്റെ റൂട്ടോ കാര്യങ്ങളോ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണമെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത് ഇപ്പം ഇത് എങ്ങനെയാണ് ഇത് ആ ട്രെയിനിൻ്റെ ലഭ്യത കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പില്ല ഞാൻ സാറിന് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ആ ശരിയാണ് ഓക്കെ അന്നേരം സാറൊന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് എന്നോടൊന്ന് പറയാമോ എനിക്ക് ഇതെങ്ങനെയാണ് കണ്ടുപടിക്കേണ്ടതെന്ന് എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിയത്തില്ല എനിക്ക് പിന്നെ നാളെയാണ് പോവേണ്ടത് നാളെ മീൻസ് ശനിയാഴ്ചയാണ് പോവേണ്ടത് അപ്പം എനിക്ക് ഇതെങ്ങനെയാണ് നോക്കിയെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചു എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം എനിക്കൊന്ന് സാറൊന്ന് പറഞ്ഞു തരുമോ നമ്മുടെ ഏജൻസി മാത്രമേ ചെയ്യാൻ പറ്റൂ ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചു അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്നെ എൻ്റെ റൂട്ടിലേക്ക് മീൻസ് കൊൽക്കട്ട ഹറയിലേക്ക് ഇപ്പ നമ്മുടെ കൊല്ലത്ത നിന്നും നമുക്ക് ട്രെയിൻ ഉണ്ടോ എന്നാണ് അറിയേണ്ടത് നാളെ നാളെ നമുക്ക് രാവിലെ ആറ് മണിക്കാണ് പോവേണ്ടത് അന്നേരം ആ ട്രെയിനിൻ്റെ എല്ലാം ഒന്നും ചെക്ക് ചെയ്തിട്ട് പറയാമോ അത് ഓക്കെ ഓക്കെ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത്രയുംം നന്നായിരുന്നു എപ്പോഴത്തേക്ക് പറയാൻ പറ്റും ഓക്കെ അര മണിക്കൂറിനുള്ളിൽ അല്ലേ ഒന്ന് നോക്കിയിട്ട് പറയണേ എനിക്ക് ഇതെങ്ങനെയാണ് കണ്ടു പിടിക്കുന്നത് അറിയത്തില്ല സാറ് വിചാരിച്ചാൽ മാത്രമേ കണ്ടു പിടിക്കാൻ പറ്റും ഓക്കെ താങ്ക്സ് ഓക്കെ